ഹലോ ആ ഇന്നെന്താണ് പരിപാടി ചോറും കറിയുമൊക്കെ ആയോ ഉം പശുവിനെയൊക്കെ അഴിച്ചുകെട്ടിയോ പശുവിനെയൊക്കെ അഴിച്ചുകെട്ടിയോ പാലൊക്കെ കൊണ്ടുപോയോ ആ പിന്നെ പിള്ളാരൊക്കെ വന്നോ ആ ഇന്നെന്താണ് വൈകിട്ടത്തേക്കിന്ന് കറിയൊക്കെ വെയ്ക്കുന്നത് ആ ഉച്ചയ്ക്കുണ്ണാൻ വരും പിന്നെ മോട്ടറൊക്കെ ഓടിച്ചേക്കണം ചിലപ്പോള് കരണ്ട് കട്ടൊക്കെയുണ്ടാകും ഉം പിന്നെ വരുമ്പോള് എന്തെങ്കിലും വാങ്ങിച്ച് കൊണ്ടുവരണോ വരുമ്പോള് എന്തെങ്കിലും കടയില് നിന്ന് വാങ്ങിക്കൊണ്ടു വരണോ ഉം പിന്നെ ആ കരണ്ട് ബില് അടയ്ക്കാം പിന്നെ ആ മഴയ്ക്കൊരു കോളുണ്ട് കേട്ടോ അതുകൊണ്ട് ആ നേരത്തെ ഉം ജനലുമൊക്കെ അടച്ചിട്ടേക്കൂ പിന്നെ ആ രാവിലത്തേക്ക് വൈകിട്ടത്തേക്ക് ചായയുടെകൂടെ എന്തെങ്കിലും ചെറുകടി വാങ്ങിച്ച് കൊണ്ടുവരാം പിള്ളാര് വരുമല്ലോ നാലുമണിയാകുമ്പോഴത്തേക്കും അല്ലെ ആ നമുക്കിന്ന് വൈകിട്ടിത്തിരി കപ്പയും ഇറച്ചിയുമങ്ങ് ഉണ്ടാക്കിയേക്കാം

പിന്നെ ആ വീടിൻറ്റെ പണിയെടുക്കാനായിട്ടൊക്കെ ആൾക്കാര് ചിലപ്പോഴാണെങ്കില് നാളത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ പിന്നെ ആ പറയൂ ആ പശുവിൻറ്റെ തൊഴുത്തൊക്കെ വൃത്തിയാക്കിയോ പിള്ളാര് വിളിച്ചായിരുന്നുവോ ഉം പിന്നെ അവര് വിളിക്കുമ്പോള് എന്നത്തേക്ക് വരുമെന്ന് ചോദിക്കണം മറ്റേ ആളിനോട്

ടാങ്ക് ഏതായാലും നന്നാക്കാനായിട്ട് ആളിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഇന്ന് വന്നില്ലെങ്കില് ആ ആ ആള് വന്നില്ലെങ്കില് നമുക്ക് വേറെയാളിനെ നാളെ നോക്കാം ആ കരണ്ട് ബില് ആ പിന്നെ കരണ്ട് ബില് അക്ഷയ വഴി അടച്ചാല് മതിയല്ലോ അല്ലേ

ആ ആ പറയാം അവരോട് പറയാം എത്രയും പെട്ടെന്ന് വന്ന് തീർത്തുതരാന് പറയാം പിന്നെ

ആ നോക്കട്ടെ നോക്കട്ടെ ആ നോക്കട്ടെ നോക്കട്ടെ ഇപ്പോള് അങ്ങനെ അതിനാണ് ആൾക്കാരെ കിട്ടാത്തത് ആ എന്നാല് ശരി